ഞാൻ അടുത്തിടെ ആഘോഷിച്ച പ്രധാന ഉത്സവം എന്നു പറയുന്നത് ഓണം ആണ് ഓണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഓണം എന്നു പറയുന്നത് കേരളത്തിൻ്റെ തന്നെ ദേശീയ ഉത്സവമാണ് അതായത് കേരളം മൊത്തമായിട്ടും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം അത് എല്ലാ മലയാളികളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ഇതിന് ഓണത്തിന് ജാതി മത ഭേദം ഒന്നും തന്നെ ഇല്ല പിന്നെ ഓണം മൊത്തം നാല് ഓണമാണുള്ളത് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം അങ്ങനെ നാല് ദിവസങ്ങളിൽ നാല് ഓണം ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവോണമാണ് നന്നായി ആഘോഷിക്കുന്നത് ഓണത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വച്ചാൽ പൂക്കളം പൂക്കളം ഇടും മാവേലി വയ്ക്കും അതുപോലെത്തന്നെ ഓണസദ്യ ഓണത്തിന് ഓണസദ്യയാണ് പ്രധാനപ്പെട്ടത് നിരവധി കറികളും ചോറ് സാമ്പാറ് രണ്ട് മൂന്ന് തരം പായസം ഇതെല്ലാം ഓണസദ്യയിൽ ഉൾപ്പെടുന്നതാണ് പിന്നെ ഓണക്കോടി ഓണത്തിന് മുമ്പ് തന്നെ നമ്മൾ ഓണക്കോടിയെടുക്കും പുതിയ വസ്ത്രങ്ങൾ എല്ലാവർക്കും അതും ഓണത്തിൻ്റെ ഒരു പ്രത്യേകതകളാണ് നമ്മൾ ഈ ഓണക്കോടിയൊക്കെ ഉടുത്തിട്ടാണ് ഓണം ആഘോഷിക്കാറ് അതുപോലെത്തന്നെ നമ്മുടെ നാട്ടിൽ ഓണത്തിന് പലവിധ മത്സരങ്ങൾ നടത്തും ഓരോ ക്ലബ്ബുകൾ പല മത്സരങ്ങൾ നടത്തും ഓണത്തിന് പ്രധാനപ്പെട്ട മത്സരങ്ങൾ എന്നു പറയുന്നത് വടംവലി ഉറിയടി വഴുക്കുമരം സുന്ദരിക്ക് പൊട്ട് തൊടൽ അങ്ങനെ നിരവധി മത്സരങ്ങൾ നടത്തും ഭയങ്കര രസമായിരിക്കും കാരണം നമ്മളെല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും ഉള്ള ഒരു ഉത്സവമാണ് ഓണം